സരി എന്താണ് സരിഗമപ എന്നു പറഞ്ഞ റിയാലിറ്റി ഷോയിൽ കുറെ നമ്മൾ പാട്ടുകാരെ കണ്ടിട്ടുണ്ട് അതിൽ ശ്രീജിഷ് എന്ന് പറഞ്ഞ പാട്ടുകാരനെ എനിക്ക് വളരെ ഇഷ്ടപെടുകയാണ് കാരണം എന്നു വെച്ചാൽ അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കരെ ഉൾക്കൊള്ളാൻ സാധിച്ചതാണ് ഭയങ്കര ഫീൽ തരുന്ന പാട്ടുകൾ ആണ് റൊമാന്റിക്ക് പാട്ടുകൾ ഒക്കെ മൂപ്പര് പാടുകയെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടപെടുന്ന പാട്ടുകൾ ആണ് മൂപ്പര് വെണ്ണിലവേ വെണ്ണിലവേ എന്നുപറഞ്ഞ പാട്ടൊക്കെ പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെത്തന്നെ നിങ്ങൾക്ക് പാട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെയുള്ള റിയാലിറ്റി ഷോ വളരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം എന്നുവെച്ചാൽ സംഗതികൾ ശ്രുതി താളം ടെമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നേ അറിയാൻ വേണ്ടിയിട്ട് പാട്ട് നിർത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ റിയാലിറ്റി ഷോ ഭയങ്കര ഉപയോഗപ്പെടുത്തും അപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ബേസിക്ക് കാര്യങ്ങൾ ഒക്കെ അറിയാൻ പറ്റും ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന രീതിയിൽ ആണെന്നുവെച്ചാൽ ആ പാട്ടിനു എങ്ങനെ ഫീൽ കൊടുക്കുണം ഈ രാഗത്തിലാണ് കൂട്ടികൊടുക്കേണ്ടെ ഈ താളത്തിലാണ് ശ്രുതി മെല്ലെ താഴ്ത്തിപ്പിടിക്കേണ്ടെ അങ്ങനത്തെ പല കാര്യങ്ങളും അറിയണം എന്നു വെച്ചാൽ ഇങ്ങനത്തെ റിയാലിറ്റി ഷോയിൽ ഒക്കെ പങ്കെടുക്കുമ്പോൽ കണ്ടാൽ മതി